എനിക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്കും എൻ്റെ മോൾക്കും വളരെ ഇഷ്ടമാണ് പാട്ട് ഞാൻ ഒരുപാട് മെലഡി സോങ്സ് കേൾക്കും പിന്നെ ഹിന്ദി സോങ്സും ഒരുപാട് കേൾക്കാറുണ്ട് തമിഴ് കേൾക്കാറുണ്ട് തമിഴ് ഹിന്ദി അറബി അറബിയില് ഈ ചെറിയ കുട്ടികളൊക്കെ ഒരു ഓതും അവരുടെ മുസാഫിലുള്ള സൂറത്തുകളൊക്കെ ഓതും അതൊക്കെ കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗായകർ എന്നുവച്ചാൽ എനിക്ക് സിത്താരേനെ ഭയങ്കര ഇഷ്ടമാണ് ചിത്രേനെ ഇഷ്ട്മാണ് മഞ്ചരി അതുപോലെ മൃദുല ഗോപി സുന്ദർ ഷാൻ റഹ്മാൻ ഇവരൊക്കെ പാടുന്ന പാട്ടുകളും ഉണ്ടാക്കുന്ന പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാദേശിക പാട്ടുകൾ കുറച്ചു പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഹിന്ദി പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞാൻ ഹിന്ദി പാട്ടുകൾ ആയിട്ട് അഡിക്ട് ആണ് അതിപ്പം ഞാൻ ഒരുപാട് കേൾക്കും കേൾക്കുമായിരുന്നു ആദ്യമൊക്കെ ഞാൻ പാട്ടു കേട്ടിട്ടായിരുന്നു ഉറങ്ങാറൊക്കെ ചെയ്യാറ് അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പ്രാദേശിക പാട്ടുകള് പാടുന്ന അർജിത് സിംഗ് ഉണ്ട് അതും എനിക്ക് ഹിന്ദി ഹിന്ദി സോങ്സ് ഒരുപാട് പാടും പാടുന്ന ഒരു സിംഗർ ആണ് അർജിത് സിംഗ് അയ അതുപോലെയും ആത്തിഫ് അസ്ലം ഇവർ രണ്ടാളേയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്